വിഖ്യാതമായ ഒരുപാട് ഗുണപാഠ സമ്പന്നമായ ഒരു പുസ്തകം പിന്നെ അതിൻ്റെ ചേതന ഒട്ടുംചോരാതെ തന്നെ വായിച്ച പ്രതീതി ലഭിക്കും ലഭിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും നന്നായിട്ടുള്ളൊരു പുസ്തകമായിരുന്നു അതിന്ന് നമ്മള് വായിച്ച് കഴിയുമ്പളാണ് അതിൻ്റെ എന്താ പറയുക ഉള്ളടക്കം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ മനസ്സിരുത്തി വായിക്കണം അതില് വിജയമന്ത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതില് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്താ പറയുക ഒറ്റയിരിപ്പിൽ തന്നെ ഞാന് ഒന്ന് രണ്ട് തവണ വായിച്ചൊരു പുസ്തകമാണ് പിന്നെ ഇത് വായിച്ചപ്പോൾ എനിക്ക് തന്ന ഒരു ആത്മവിശ്വാസംന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് അതുകൊണ്ടന്നെ ഞാനീ പുസ്തകം അത്രയും എന്താ പറയുക ഗ്രേറ്റായിട്ട് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ സമയൊന്നും കളയാതെ ഈ പുസ്തക വായനയിലേക്ക് ശ്രദ്ധിക്കാനുള്ള മെയിൻ കാരണം പൗലോ കൊയ്ലോയുടെ വിജയമന്ത്രങ്ങളാണ്